നാല് ബി ക്ലാസ്സിൽ പഠിക്കുന്ന ആദർശിൻ്റെ അമ്മയാണ് ഞാൻ ആദർശിൻ്റെ ക്ലാസ് ടീച്ചറല്ലേ ക്ലാസ് ക്ലാസ് ടീച്ചറല്ലേ ഓന് ഒന്നും പഠിക്കുന്നില്ലാന്ന് വീട്ടിൽ വന്നിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല അച്ഛനും അമ്മയും പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല കളിതന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലോണം കുറവ് ഇല്ലപ്പാ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഒന്നും പഠിക്കുന്നില്ല പുസ്തകം തുറക്കലില്ല ഹോംവർക്ക് എഴുതേണ്ടത് എഴുതും എന്തെങ്കിലും വായിക്കേണ്ടതൊന്നും വായിക്കുന്നൊന്നും ഇല്ല പറഞ്ഞാൽ പറയുക അമ്മ അവിടെ മിണ്ടാതിരിക്ക് പറയും

ആ ആ

വേറെ ഒന്നും പറയാനില്ല ആ സ്കൂളിൽ വരാൻ മടിയൊന്നും ഇല്ല പഠിക്കാനേ മടി ഉള്ളൂ ആയി ഓക്കെ